അന്താരാഷ്ട്ര യോഗ ദിനം പോലെയുള്ള കാര്യങ്ങൾ യോഗയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് യോഗ എന്നുപറയുന്നത് ഋഷിവര്യന്മാര്ക്ക് ചെയ്യാന് മാത്രമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമായിട്ടാണ് യോഗയെ കണക്കാക്കിയിരുന്നത് അത് തന്നല്ല വളരെ പ്രായം ചെന്ന ആളുകൾ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കുന്നവർ ഇവര്ക്ക് മാത്രമായിട്ടാണ് യോഗ എന്ന ഒരു പിന്നെ യോഗ എന്നുപറയുന്ന കാര്യം ചെയ്യാനായിട്ട് നിഷ്കര്ഷിച്ചിരുന്നതെന്നാണ് പൊതുവേയുള്ള ധാരണ അല്ലെങ്കില് തന്നെ യോഗ ചെയ്യുന്നവർ കൂടുതലും മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്നുള്ള ഒരു ഒരു ചിന്താഗതി ജനങ്ങള്ക്കിടയില് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് യോഗയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നത് ശ്രീ ശ്രീ രവി ശങ്കരന്റെ ആര്ട്ട് ഓഫ് ലിവിങ്ങ് പോലെയുള്ള സംഘടനകൾ വന്നതോടുകൂടി യോഗയുടെ ഇമ്പോര്ട്ടന്സ് പ്രാധാന്യം വര്ദ്ധിക്കുകയുണ്ടായി പിന്നെ ഈ അന്തരാഷ്ട്ര യോഗ ദിനമായിട്ട് ജൂണ് ഇരുപത്തൊന്ന് എല്ലാ വര്ഷവും നമ്മൾ നടപ്പിലാക്കുന്നു അന്ന് സ്കൂളുകൾലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം പിന്നെ യോഗയുടെ ഈ പ്രാധാന്യത്തെ പറ്റിയും യോഗ പരിശീലിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും ഉള്ള ബോധവല്ക്കരണം കുട്ടികള്ലും മുതിര്ന്നവരിലും ഒക്കെ എത്തിക്കാന് സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ദിനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു ജൂണ് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ ആളുകളും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് പോകുന്നത് അല്ലാതെ യോഗ യോഗ എന്ന് പറഞ്ഞു യോഗ പരിശീലിക്കണം യോഗയുടെ ആവശ്യം ആധുനിക ജീവിതത്തിൽ യോഗയ്ക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആളുകൾ കൂടുതലും യോഗയ്ക്ക് അധികം ഇമ്പോർട്ടന്സ് കൊടുക്കാറില്ലായിരുന്നു പക്ഷേ യോഗ ഇനി ജൂണ് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ഐക്യരാഷ്ട്രം അംഗീകരിച്ചതിന് ശേഷമാണ് യോഗയ്ക്ക് ഇത്രയും ഇമ്പോർട്ടന്സ് ഉണ്ടായത് അപ്പോൾ യോഗയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്സ് യോഗയ്ക്ക് യോഗയ്ക്ക് ഏറ്റവും കൂടൽ യോഗയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്സ് കൊടുത്തിരുന്നത് ഇങ്ങനെയുള്ളൊരു അന്താരാഷ്ട്ര സംഘടനകൾ വന്നതിന് സേ അന്താരാഷ്ട്ര സംഘടനകൾ വന്നതിന് ശേഷമാണ് അന്താരാഷ്ട്ര സംഘടന യോഗയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് യോഗയ്ക്ക് ഇതേവരേ ഇത്രയും പ്രാധാന്യം കൊടുക്കുകയും കൂടുതൽ കാര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് അതിനാല് യു എൻ ഒ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന ജൂണ് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് എല്ലാ വര്ഷവും ആചരിച്ച് പോവുന്നു അതോടുകൂടി ജനങ്ങള്ക്ക് നല്ലൊരു അവബോധം ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അതിനാല് യോഗയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുണ്ട് പല സംഘടനകളും പല അധ്യാപകരും അന്നേ ദിവസം യോഗ പ്രാക്റ്റീസ് ചെയ്യുന്നതിന്റെ പടം ഫോട്ടോസുമെല്ലാം എടുക്കുകയും അത് സോഷ്യല് മീഡിയാസിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ യോഗ ദിനത്തെ യോഗയെ ഇത്രയും അധികം ഇമ്പോർട്ടന്സ് ആക്കി മാറ്റാനായിട്ട് ഇതിന് സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം ജനങ്ങളെ സഹായിക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ എനിക്ക് പറയാനായിട്ട് ഇവിടെ ഉള്ളത് യോഗ യോഗ മനസ്സിനേയും ശരീരത്തേയും ഒരുപോലെ യോജിപ്പിക്കുന്ന ഒന്നാണ് യോഗ യോഗയ്ക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കാന് കഴിയുന്ന ഒന്നാണ് യോഗ മനുഷ്യന്റെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനേയും സ്പര്ശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യോഗയിലൂടെയുള്ള മെഡിറ്റേഷന് ഇതെല്ലാം നമ്മളെ ഒരു പുതിയ അനുഭവ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ ദേഷ്യം നിയന്ത്രിക്കാനും എടുത്തു ചാടിയുള്ള അവന്റെ സംസാരത്തെ നിയന്ത്രിക്കാനും എല്ലാം യോഗ ഒരു പരിധി വരെ മനുഷ്യനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും യോഗയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ അതിന്റെ ഭക്ഷണ രീതി ഉള്പ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും അവന്റെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കാനുമെല്ലാം യോഗ പ്രാക്റ്റീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും എന്നാണ് ഞാന് വിശ്വസിക്കുന്നത് മനുഷ്യന് ഉണ്ടാകുന്ന പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും യോഗ പ്രാ യോഗ പ്രാക്റ്റീസ് ചെയ്യുന്നതിലൂടെ യോഗ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ജൂണ് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് വിന്നോ ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു അത് ലോകത്തിൽ ഇന്ത്യയില് ആവിര്ഭവിച്ച യോഗ എന്ന യോഗ യോഗയെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒര് അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് യു എൻ ഒ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്സ് ഓര്ഗനൈസേഷന് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വര്ഷവും ജൂണ് ഇരുപത്തൊന്നാണ് ഇന്റര്നാഷണല് യോഗാ ദേയ ഡേ ആയിട്ട് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് യോഗയ്ക്ക് യോഗയുടെ പ്രാധാന്യത്തെ പറ്റി പല തരത്തിലുള്ള ക്ലാസുകളും ബോധവല്ക്കരണ ക്ലാസുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പലപ്പോഴും നമ്മൾ അത് പരിശീലിക്കാന് ശ്രമിക്കാറുണ്ട് കുട്ടികളിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട് പല സ്കൂളുകളിലും ഇപ്പോള് പാഠ്യ പദ്ധതിയോടൊപ്പം യോഗ പോലെയുള്ള കാര്യങ്ങളും ഉള്പ്പെടുത്തിയിരിക്കുന്നു കുട്ടികളിലെ ദേഷ്യ ഭാവം കുറയ്ക്കാനും സമഭാവനയോടെ ജീവിക്കാനും എല്ലാം ഇത് സഹായിക്കുന്നെന്നാണ് വിശ്വാസം യോഗ മനുഷ്യനെ മാത്രമല്ല നമ്മുടെ ആത്മാവിനേയും ശുദ്ധീകരിക്കാന് യോഗയ്ക്ക് കഴിയുമെന്നാണ് ഞാന് വിശ്വസിക്കുന്ന